ഹലോ ഇത് റിയ ട്രാവൽ ഏജൻസിയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഒരാഴ്ച്ച മുമ്പ് ഞാൻ നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അതിനുശേഷം ക്യാബ് വന്നു എനിക്ക് ഞാൻ കൊച്ചിയിലേക്കായിരുന്നു കൊച്ചിയിൽ എനിക്ക് കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നോട് നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ നിങ്ങൾ നേരത്തെ എന്നോട് മുൻകൂട്ടി അറിയിച്ചിരുന്നത് അവിടംവരെ എത്താൻ വേണ്ടി മുവായിരം രൂപ ആണ് ആവശ്യപ്പെട്ടിരുന്നത് അതനുസരിച്ച് ഞാൻ മുവായിരം രൂപ കൊടുക്കാൻ തയ്യാറായപ്പോഴത്തേക്കും ഡ്രൈവറ് പറഞ്ഞു മുവായിരം പോര അയ്യായിരം പുള്ളിക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നു അത് ആക്ച്വലി നിങ്ങൾ പറ നമ്മൾ എഗ്രീ ആയതിനേക്കാളും കൂടുതലാണ് ആവശ്യപ്പെടുന്നത് ഇതൊരു ശരിയായ രീതി അല്ല എന്താണിങ്ങനെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് തീർത്തും ഇത് മര്യാദയില്ലാത്തൊരു പെരുമാറ്റമാണ് ഒന്നേ എന്താണത് ചെയ്യേണ്ടത് ഇത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ പല പ്രാവിശ്യം നിങ്ങളുടെ ക്യാബ് ഉപയോച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് മുമ്പൊന്നും എനിക്ക് ഇത്തരം ഒരു സാഹചര്യം അനുഭവപ്പെട്ടിട്ടില്ല എന്നോട് ആരും ഒരു ഡ്രൈവേഴ്സും ഇങ്ങനെ അപമര്യാദയായി പെരുമാറിയിട്ടും ഇല്ല ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെയൊരു പെരുമാറ്റം എനിക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഈ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എനിക്ക് എന്തായാലും ആവിശ്യപ്പെട്ടതിൽ നിങ്ങൾ നമ്മൾ എഗ്രീ ചെയ്തതിൽ കൂടുതൽ എമൗണ്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സാധിക്കത്തും ഇല്ല എൻ്റെ കയ്യിൽ അത്ര പണം ഇപ്പോൾ നിലവിൽ ഇല്ലതാനും അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരിക